സ്റ്റാമ്പുകൾ നാണയങ്ങൾ കല്ലുകൾ ഇപ്പോള് എൻ്റെ ശേഖരത്തിനായി ഞാൻ ശേഖരിക്കുന്നത് സ്റ്റാമ്പുകൾ എൻ്റെ വിദേശ സുഹൃത്തുക്കളോടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വരുന്ന കത്തകളിൽ നിന്ന് വരുന്ന സ്റ്റാമ്പുകൾ മുഴുവൻ ഞാൻ ശേഖരിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ കത്തുകളുടെ ഉപയോഗം കുറഞ്ഞെങ്കിലും നേരത്തെയുണ്ടായിരുന്ന ആളുകളില് നിന്നൊക്കെ ഇത് ഞാൻ ശേഖരിക്കാറുണ്ട് സ്റ്റാമ്പുകളുടെ ശേഖരം ഇപ്പം വളരെ കുറഞ്ഞുവന്നിരിക്കുകയാണ് വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോൾ കത്തുകൾ വരുന്നത് അപ്പോള് അതിൽ നിന്നാണ് ശേഖരിക്കുന്നത് നാണയങ്ങളും വിദേശങ്ങളിൽ നിന്നുവരുന്ന സുഹൃത്തുക്കൾ വഴി ശേഖരിക്കുന്നുണ്ട് സുഹൃത്തുക്കളോട് പറഞ്ഞുവിടും വരുമ്പോൾ അവിടുത്തെ അത് തങ്ങളുടെ രാജ്യങ്ങളിലുള്ള നാണയങ്ങൾ കൊണ്ടുവരുവാൻ അങ്ങനെ നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കൾ നിരവധി രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സുഹൃത്തക്കളിൽ നിന്നൊക്കെ നാണയങ്ങൾ സൂക്ഷിക്കാറുണ്ട് കല്ലുകൾ കല്ലുകളും ഇതുപോലെയാണ് വിവിധങ്ങളായ സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കൾ വഴി കല്ലുകൾ ശേഖരിക്കുന്നു മ്യൂസിയത്തില് സൂക്ഷിക്കുന്നത് കൊടുക്കുന്നത് മറ്റുള്ളവർക്കത് പുറത്ത് കൊടുക്കുന്നതാണെങ്കിൽ മ്യൂസിയത്തിൽ നിന്നെല്ലാം വാങ്ങിച്ച് സമുദ്ര ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളോടുമൊക്കെ പറഞ്ഞ് ഇത് ശേഖരിക്കാറുണ്ട് നാണയങ്ങൾ നാണയങ്ങൾ ലഭിക്കുന്നതിനാണ് പ്രയാസമില്ലാത്തത് വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് നാണയങ്ങൾ എത്തുമ്പോൾ അവ വിപുലമായിട്ടുള്ളൊരു ശേഖരമായി സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് അതുപോലെത്തന്നെ കല്ലുകള് കല്ലുകൾ അങ്ങനെ ശേഖരിച്ച് വിവിധ ഷേയിപ്പുകളിലുള്ള വിവിധ രൂപത്തിലുള്ള വെള്ളത്തിൽ ഒഴുകിയെത്തി വിവിധ പാറകളിൽത്തട്ടി ഉരുണ്ട് വിവിധ രൂപത്തിൽ നമുക്ക് ലഭിക്കാറുണ്ട് കല്ലുകൾ ആ കല്ലുകളുടെ മനോഹാരിത വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതാണ് അത് നമ്മള് സമുദ്രഭാഗങ്ങളിലും സമുദ്രത്തിന് ചുറ്റും വലിയ ആറുകളിലും ചുറ്റുമൊക്കെയുള്ള ആളുകളോടുമായിട്ട് അവിടെനിന്നൊക്കെ ശേഖരിക്കുമ്പോൾ ശേഖരിച്ച് വീട്ടില് കൊണ്ടുവന്ന് നമ്മളതിന് പുത്തൻ പെയിൻറ്റും കളറുമൊക്കെ ഉപയോഗിച്ച് വളരെ മനോഹരമാക്കാറുണ്ട് അല്ലാതെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകിവരുമ്പോൾ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ വിവിധ കല്ലുകളില് തട്ടി ഒഴുകിവരുമ്പോൾ അത് അതിൻ്റെ രൂപമാറ്റം വന്ന് വെറും കല്ല് രൂപമാറ്റം വന്ന് വിവിധ രീതിയിൽ വിവിധ ആകർഷകമായിട്ടുള്ള രൂപമാറ്റം വന്ന് നമുക്ക് ലഭിക്കാറുണ്ട് വിവിധ രൂപത്തിൽ കല്ലുകൾക്ക് രൂപഭേദം വന്ന് നമുക്ക് ലഭിക്കാറുണ്ട് അതുപോലെ സ്റ്റാമ്പുകൾ സ്റ്റാമ്പുകളില് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് സ്റ്റാമ്പുകളുടെ ലഭ്യത ഇപ്പം വളരെ കുറവാണ് വളരെ പ്രായമുള്ള മുൻഗാമികൾ ശേഖരിച്ചുവെച്ചിരുന്ന ഇപ്പോൾ അവര് ശേഖരിക്കുന്നില്ലെങ്കിൽ അവരോടൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് ഇപ്പോഴും ശേഖരിക്കാം വിദേശ രാജ്യങ്ങളിലൊക്കെ അവിടെ വരുന്ന കത്തകളിൽ നിന്നുള്ള സ്റ്റാമ്പുകളും അവരോട് പറഞ്ഞ് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെയും ശേഖരിക്കാറുണ്ട് ഓൺലൈനായിട്ട് സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സുഹൃത്തുക്കൾ വഴി വാങ്ങിക്കുന്നത് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് ഇത്തരം സാധനങ്ങള് ഞാൻ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് മാർക്കറ്റില് ചെന്ന് നേരിട്ട് വാങ്ങാറുള്ളതായതുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങളെ ഞാൻ ആശ്രയിക്കാറില്ലാത്തതുകൊണ്ടും സുഹൃത്തുക്കൾ വഴിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുപോന്നിരുന്നത് അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തി വിവിധങ്ങളായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ നാണയങ്ങളായാലും സ്റ്റാമ്പുകളായാലും പുതുപുത്തൻ കല്ലുകളായാലും ഇങ്ങനെ ശേഖരിക്കുകയാണ് എൻ്റെ പതിവ് ലേലത്തിനെടുക്കുന്ന സംവിധാനമൊന്നും നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഇല്ലാത്തതുകൊണ്ടും മ്യൂസിയങ്ങളിലോ മറ്റ് കടകളിലൊ ഒക്കെ വില്ക്കാനുണ്ടെങ്കിൽ അവിടെനിന്നും ശേഖരിച്ച് ഞാൻ കൊണ്ടുവരാറുണ്ട് തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് വാങ്ങുകയല്ല പതുവ് എന്ന കാര്യവും ഈ കൂട്ടത്തിൽ ഞാൻ ഓർമിപ്പിക്കുന്നു ഓൺലൈൻ സംവിധാനത്തിലേക്കുള്ള കടന്നുകയറ്റം എനിക്കുണ്ടായിട്ടില്ല താങ്ക് യൂ